ഇന്ത്യയിലെ നർത്തകരെ ബോളിവുഡ് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നല്ല രീതിയിൽ നർത്തനം ചെയ്യുന്ന ആൾക്കാരും ആളുകളെ ശ്രദ്ധിക്കുകയും അവർക്ക് സിനിമയിൽ അവസരം നൾകുകയും ചെയ്യുന്നത് എക്കാലത്തെയും ഒരു ട്രെൻഡ് ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചില നിത്യഹരിത നൃത്തഗാനങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോലുബാജെ പോലുള്ള അടിച്ചുപൊളി സോങ്ങുകളും അതുപോലെത്തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ പണ്ട് പണ്ടുള്ളവർക്കും ഇന്നുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് അത് അതിനെല്ലാം മാറ്റാനായി അതിന് അതിനെല്ലാം ഒരിക്കലും മാറ്റി എഴുതാനായി പുതിയ ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം പണ്ടുള്ളവയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ ഒരുപാട് കാജോളും ഷാരുഖ് ഖാനും ഒക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള പല ഗാനങ്ങളും നമുക്ക് ഇന്നും എല്ലാവരുടെയും ജനപ്രീതി നേടിയിട്ടുള്ളതാണ് അവരുടെ കോമ്പോ എല്ലാം